ഞാനങ്ങനെ അധികം പത്രം ഫോളോ ചേയ്യുന്ന ആളോ അല്ലെങ്കിൽ ന്യൂസ് കാണുന്നയാളൊന്നുമല്ല നോർമ്മലി സാധാ വീടുകളിൽ വീട്ടിൽ മലയാള മനോരമയാണ് വരുത്താറ് വരുത്തുന്ന പണ്ടൊക്കെയാണെങ്കിൽ സ്പോട്സ് പേജും അതൊക്കെ നോക്കിയിരിക്കും പിന്നെ ആ അതിൽ കുറച്ച് കാര്യങ്ങളും ആ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് സ്പോട്സിനോടാണ് കൂടുതൽ താല്പര്യവും പണ്ട് സ്പോട്സ് പേജും അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ഇപ്പോൾ പിന്നെയും നമ്മളധികം നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള ന്യൂസുകളും എന്തൊക്കെ പുതിയ സാധനങ്ങളുണ്ടായി എന്തൊക്കെ പുതിയതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എല്ലാ ആൾക്കാർ ചെയ്ത തെറ്റുകളും എല്ലാ രീതിയ്ക്കുള്ള ആൾക്കാരും കേസുകളും എല്ലാത്തിനെപ്പറ്റിയും ന്യൂസ് കാണുന്നതിനേക്കാളും കൂടുതൽ പത്രം വായിക്കുന്നതിനേക്കാളും കൂടുതൽ ന്യൂസാണ് നമ്മൾ ഫോളോവപ്പ് ചെയ്യാറ് ഫോണിൽക്കൂടി ആയാലും ഇപ്പോൾ ട്വൻ്റി ഫോറ് ഏഷ്യാനെറ്റ് മലയാളമനോരമ എല്ലാത്തിൻ്റേയും ഒരൂ ഒരുവിധം ഐഡിയയുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അതൊക്കെ ഫോളോവപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ നമുക്കതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഫോളോവപ്പ് ചെയ്തു പോകുന്നുണ്ട് അപ്പം അതിലൂടെ നമുക്കെല്ലാം അറിയാൻ പറ്റും പിന്നെ ഓരോരോ ഇൻഫ്ലുവൻസേഴ്സുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സുണ്ട് അപ്പോൾ ആ അതൊക്കെ നമ്മൾ നോക്കി ഫോളോവപ്പ് ചെയ്യും പ്രശ്നങ്ങളേപ്പറ്റി പറയാൻ വേണ്ടിയും എല്ലാത്തിനെപ്പറ്റി പറയാൻ വേണ്ടിയും ഇൻഫ്ലുവെൻസേഴ്സ് പിന്നെ ന്യൂസ് വീടുകളിൽ വീട്ടിൽ കൂടുതലും വാപ്പച്ചിയും ആൻ്റിയുമൊക്കെ ഇങ്ങനെ ന്യൂസ് കാണും അപ്പോൾ അവരുടെ ഒപ്പമിരുന്ന് ന്യൂസ് കാണും എല്ലാ കാര്യങ്ങളും അപ്ഡേയ്റ്റഡാവും നമ്മൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് ന്യൂസ് പേപ്പറാണെങ്കിലും ന്യൂസ് ചാനലുകളാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പേജുകളാണെങ്കിലും നമ്മളെല്ലാം അപ്റ്റുഡേറ്റാണ് കാരണം ഇൻസ്റ്റാഗ്രാമാണ് എനിക്ക് കൂടുതലും യൂസായിട്ട് തോന്നിയിട്ടുള്ളത് അതിലുള്ള ന്യൂസ് ചാനലുകളുടെ ഇതെല്ലാം നമ്മൾ യൂത്താണ് പ്രോബബ്ലി കുറേ ടൈം ഫോണും ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുകളാണ് അതുകൊണ്ട് നമുക്ക് അതിനെയൊക്കെ ഫോളോവപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ന്യൂസുകളും എല്ലാ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സേയ്ഫായിട്ട് എല്ലാമറിഞ്ഞാണ് പോകുന്നത് ന്യൂസ് പേപ്പറുകൾ വായിക്കും ന്യൂസ് പേപ്പറുകൾ വീടുകളിലിപ്പോൾ വീട്ടിൽ പോകുമ്പോഴാണ് കൂടുതലും വായിക്കാറ് ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ചാനലും ചാനലുകൾ ഫോളോ ചെയ്യും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ചാനലിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോള്ളോവപ്പ് ചെയ്യാറുണ്ട് റീസെൻ്റായിട്ട് നടക്കുന്ന ന്യൂസുകളും എല്ലാം നമ്മൾ അറിഞ്ഞും കണ്ടും ചെയ്യും പിന്നെ ആ സോഷ്യൽ വർക്ക് സ്റ്റുഡൻ്റാണ് അതിനുശേഷം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കടമ തന്നെയാണ് ന്യൂസ്പേപ്പർ ന്യൂസ് വായന സോഷ്യൽ വർക്കറായതുകൊണ്ടാണ് നമുക്കതിലൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല ഇമ്പോട്ടൻസായിട്ട് കൊടുത്തു ക്ലാസ്സുകളിൽ അസൈൻമെൻ്റുണ്ടാവും ന്യൂസിലുള്ള കാര്യങ്ങൾ ന്യൂസ്പേപ്പറ് വായിച്ച് എന്താ മനസ്സിലായത് പുതിയ പുതിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇപ്പോൾ റിസർച്ചിൻ്റെ ടോപ്പിക്ക് വരികയാണ് അപ്പോൾ അതുവരെ വരുമ്പോഴായാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാകുമായിരിക്കും അത്രയാണ് നമുക്കിപ്പോഴൊരു ന്യൂസ്പേപ്പർ വ്ലോഗിങ്ങ് അതിനെപ്പറ്റിയൊക്കെ പറയാനുള്ളത്